നമ്മുടെ സാങ്കേതിക വിദ്യ നമുക്ക് നല്ല രീതിയിലും ചീത്തയായ രീതിയിലും ഉപയോഗിക്കാൻ പറ്റും നല്ല രീതിക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ലോകത്ത് ഏത് സ്ഥലത്തുള്ള ആൾക്കാരെയും പരിചയപ്പെടാം അവരുമായിട്ട് സൗഹൃദം ഉണ്ടാക്കാം അങ്ങനെയുള്ളൊരു നല്ല അതായത് പെട്ടന്ന് നമുക്ക് മനസ്സിൽ ഓടിവരുന്ന കാര്യമാണ് ഏത് രാജ്യക്കാരുമായിട്ട് നമുക്ക് സൗഹൃദവും കാര്യവും ഉണ്ടാക്കാൻ പറ്റും അതിൻ്റെ ദൂഷ്യഫലം എന്ന് പറയുമ്പോൾ പണ്ട് നമ്മൾ ആൾക്കാര് നേരിട്ട് കണ്ട് സംസാരിക്കും കൂട്ടുകാര് ആണെങ്കിൽ പുറത്ത് ഇറങ്ങുക അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനത്തെ പരുപാടിയൊന്നമില്ല എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും മൊബൈലിൽ ഫുൾ ടൈം മൊബൈലിലായ കാരണം കൊണ്ട് അങ്ങനെ പുറത്ത് ട്രിപ്പിങ്ങ് ഒക്കെ വളരെ കുറവാണ് എന്താ പറയുക സൗഹൃദം എല്ലാം മൊബൈലിലൂടെ ആയി അപ്പോൾ നേരിട്ട് കാണാത്തതിൻ്റെ ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ പണ്ടത്തെപ്പോലെ കുട്ടികൾ കളിക്കാൻ പോകാണ്ട് ഫുൾ ടൈം സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും അധികം ഇരിക്കണം അപ്പോൾ അവരുടെ ആരോഗ്യനില ചില കുറച്ച് എന്താ പറയുക ബുദ്ധിമുട്ടിലാണ് അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ നോക്കണം എന്ന് പറയുമ്പോൾ അവർക്ക് ആരോഗ്യരംഗത്ത് പൊതുവെ മെച്ചപ്പെടാൻ പറ്റുന്നില്ല അങ്ങനെ പല പ്രശ്നങ്ങളും നമ്മുടെ സോഷ്യൽ മീഡിയ വഴി നമുക്ക് എന്താ പറയുക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് പിന്നേ കുറെ കുട്ടികൾ വഴിതെറ്റി പോകുന്നുണ്ട് നമ്മൾ അതായത് ആ ഒരു കാര്യം നോക്കണം എന്ന് പറയുമ്പോൾ അതിലിപ്പോൾ രണ്ടും ഉണ്ടാകുമല്ലോ നല്ല കാര്യവും ചീത്ത വശവും നമ്മൾ ഏതാണോ തിരഞ്ഞെടുക്കുന്നത് ആ വഴിയിലൂടെ നമുക്ക് മാക്സിമം പോകാൻ പറ്റും അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ചെയ്യട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും